നമ്മുടെ വീട്ടിൽ വെള്ളം അരിക്കാനും ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മെയ്നായിട്ട് ഞാൻ എന്നാ പറഞ്ഞാ ഈ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഓലിയുണ്ട് പിന്നെ ശുദ്ധീകരിക്കുക എന്നെക്കെ പറഞ്ഞാൽ നമ്മൾ ഓസ് ടാങ്കീന്നൊക്കെ വെക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു കവറായിട്ട് ഇടികേലേ അങ്ങനത്തെ പരിപാടിയെക്കെയാണ് നമ്മൾ മെയ്നായിട്ട് വെള്ളം ശുദ്ധീകരിച്ച് നമ്മുടെ എന്നാ പൈപ്പിലോട്ട് വരുവെന്ന് പറയണത് പിന്നെ വെള്ളം അരിക്കുക എന്നെക്കെ പറഞ്ഞാൽ പാൽ അല്ല അരിക്കുക എന്നൊക്കെ ഓക്കെയാണ് വെള്ളം അങ്ങനെ അരിക്കാറില്ല മോട്ടറക്കെ അടിക്കുമ്പഴ്ത്തേനും വെള്ളം അരിച്ചായിരിക്കും വരുന്നത് അങ്ങനെയുള്ള ഇത് കാണും അല്ലാതെ അങ്ങനെയെക്കെയാണ് വീട്ടിൽ ഒക്കെ പോണത് വീട്ടിലുള്ള പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വെള്ളം ഒക്കെ അത്യാവശ്യം ശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ മറ്റേ തിളപ്പിച്ച വെള്ളമില്ലേ തിളപ്പിച്ച് വെക്കുമ്പോൾ വെള്ളം ഒക്കെ ശുദ്ധീകരിച്ച് വരും പിന്നെ ഓലി വെള്ളം അങ്ങനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു കാരണം വെച്ചാൽ ഡെയറക്റ്റ് ഭൂമിക്കടീന്ന് വരുന്ന വെള്ളം ആയത് കൊണ്ട് ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇല്ല നല്ലൊരു അങ്ങനെ പൊക്കോളും നല്ല വെള്ളം ആണ് അത് കുടിക്കുന്നതിന് കുഴപ്പം ഒന്നുമില്ല പിന്നേന്ന് പറഞ്ഞാൽ ആ അങ്ങനെയാണ് വെള്ളത്തിൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഉള്ളത് പിന്നെ വീട്ടിൽ വേറെ അരിക്കാന്ന് പറഞ്ഞാൽ പിന്നെ പാൽ ഒക്കെ വെക്കാനണ്ട് മറ്റെ അരിപ്പയെക്കെ യൂസ് ചെയ്യും അല്ലാതെ വെള്ളം അരിക്കാനായിട്ട് അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെയാണ് വീട്ടിൽ എല്ലാം പോകുന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ അവമ്മാരിത് വലിയ കൊള്ളൂല്ലാത്ത വെള്ളം ഉള്ള ഒരു സ്ഥലം ഉണ്ട് അവിടേന്ന് പറഞ്ഞാൽ അവർ വെള്ളം തെളപ്പിക്കേം പിന്നല്ലാതെ മോട്ടറ് ഫിൽട്ടറെക്കെ ഫിൽറ്ററ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് അവർ മെയ്നായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള അണുക്കളും കാര്യങ്ങൾ ഒക്കെ പോവാനുണ്ട് കാരണം വെച്ചാൽ ഒന്ന് അടുത്ത് പോകുന്ന അവിടെ പോകുന്ന ഒരു തോടിൻ്റെ അടുത്ത ഒരു ഓലി നിന്നാണ് അവൻ വെള്ളം എടുക്കണത് പക്ഷേ ആ തോടിൻ്റെ അവിടെ മലിനം ആയത് കൊണ്ട് ഓലിലെ ഇച്ചിരി ഈ പ്രശ്നങ്ങൾ ഉണ്ട് ഓലീൽ അവിടെയൊക്കെ ആയിട്ട് പുഴയുടെ അടുത്തായത് കൊണ്ട് വേസ്റ്റ് വെള്ളം പോകുന്നൊരു പുഴയാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പഴത്തേക്കിനും ചെറിയ വെള്ളം അരിക്കാനൊക്കെ ആയിട്ട് ഇച്ചിരി പ്രശ്നം ഉണ്ട്

അങ്ങനെയാണ് അവൻ അവിടെ ജീവിക്കണത് അത്പോലെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോളേജിൻ്റവിടെ ഇഷ് വെള്ളം ഇരിക്കുന്ന വെള്ളവരിക്കേല്ല ഫിൽറ്റേസ് കുറച്ച് പോവുമ്പം ഉണ്ട് അപ്പം അവിടെ ചൂട് വെള്ളോം പച്ച വെള്ളം ഒക്കെ കിട്ടും അപ്പം അത് കുടിക്കും ആ അത്രയെ ഉളളു